കാരണം സൈഡ് ചുറ്റുപാടുകൾ അത്രയും മലിനമാക്കപ്പെടുന്നു അതുകൊണ്ടുതന്നെ രോഗങ്ങള് പുതിയതായിട്ട് ഓരോന്ന് വരുന്നു പഴയത് തന്നെ എല്ലാവര്ക്കും പിടിപെടുന്നു പനി ചുമ ജലദോഷം ഇതൊക്കെ വന്നാൽ പിന്നെ വിട്ടുമാറാന് ഭയങ്കര പണിയാണ് പിന്നെ പോഷകാഹാരക്കുറവ് അതുമൊരു കാരണം തന്നെയാണ് കാരണം പ്രകൃതി മലിനമാക്കപ്പെടുന്നു അതിന്റെ ഫലമായിട്ട് നമ്മളും മലിനമാക്കപ്പെടുന്നു അതിന്റെ ഒരു മാധൃമം തന്നെ മാധൃമമാണ് പകര്ച്ചവ്യാധികളും സാംക്രമിക രോഗങ്ങളും ഒക്കെ എന്ന് പറയുന്നത് അപ്പോൾ

ഇപ്പോൾ ജീവിത നിലവാരം മെച്ചപ്പെടുത്തണമെങ്കില് ആരോഗ്യത്തിന് അതായത് ജീവിതനിലവാരം മെച്ചപ്പെടുത്തണമെങ്കിൽ ആ ആ ഒരു ജീവിത നിലവാര ഘട്ടത്തിൽ ആരോഗ്യത്തിന് വളരെ വലിയ പ്രാധാന്യമാണുള്ളതാണ് അപ്പോൾ ആരോഗ്യത്തിന്റെ നിലവാരം നമ്മള് നോക്കേണ്ടത് അനിവാര്യമാണ്